ആ ഡോക്ടറല്ലേ എനിക്ക് രണ്ടു ദിവസമായിട്ട് പനിയും ജലദോഷം വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു

കറക്റ്റ് ആയിട്ട് പറയാണെങ്കിൽ മിനിഞ്ഞാന്ന് തുടങ്ങിയതാണ് അപ്പം കുറയുന്നില്ല

ആ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം പാരസെറ്റാമോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ പക്ഷെ കുറയുന്നില്ല ഇല്ല ഇല്ലില്ല ആ അപ്പം ഇത് തടവി ആ പിന്നെ മേൽ വേദന ഭയങ്കരമായിട്ട് ആ മേൽ വേദന ഭയങ്കരമായിട്ട് ഉണ്ട് പിന്നെ വമിറ്റിംഗിൻ്റെ ഒരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട് ആ കഫൊക്കെ ആയിട്ടാണ് വരുന്നത് എന്താ സംഭവംന്ന് അറിയില്ല ഭയങ്കരമായിട്ട് മേലുവേദന ഒക്കെ ഉണ്ട് അപ്പം രണ്ടു ദിവസമായിട്ട് കിടപ്പിലായിരുന്നു

ഇല്ല ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ എവിടെയും പോയിട്ടില്ല അപ്പം ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കിയതാണ് ഇല്ലില്ല

ഈ വൈറൽ ഫീവർ അങ്ങനെ എന്തെങ്കിലും ആണോ

ആ ഉണ്ട് ആ ആ അതെ അതെ

ആ ചെറുതായിട്ടുണ്ട് തല ഭയങ്കരായിട്ടൊരു വെയ്റ്റ് നിൽക്കുന്ന പോലൊരു ഫീൽ ഉണ്ട്

ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഇല്ല തല എന്തോ നല്ല വെയ്റ്റ് തോന്നിക്കുന്നുണ്ട് ഉണ്ട് ആഹ് ചെറുതായിട്ടൊരു മഞ്ഞ കളറ് വരുന്നുണ്ട്

ആ ചെറു ഒരു ചെറുതായിട്ട് വലത്തേ സൈഡിൽ ചെറുതായിട്ടൊരു വേദന ഉണ്ട് അതെ ആ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെ ആണേ നാളെ വന്ന് കാണിക്കാം ഓ ഓക്കെ